എനിക്ക് ദേഷ്യമാണ് രാഷ്ട്രീയം എനിക്ക് വൈകിട്ടത്തെ ആ ഡിബേറ്റ്സ് കാണാനായിട്ട് ഒരുപാട് ദേഷ്യമാണ് പക്ഷെ കുറച്ച് കാര്യം സമകാലിക വാർത്തകളാണ് ഞാൻ കാണുന്നത് ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് അല്ലാതെ എനിക്ക് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയത്തിലും ഞാനില്ല അതായത് വാർത്തകള് ഈ പറഞ്ഞപോലെ അവർക്ക് ഒരു കാര്യം കിട്ടിയാൽ പത്രക്കാരായാലും മാധ്യമങ്ങൾ അല്ല ഏതായാലും ടെലിവിഷൻ ആയാലും പത്രം ആയാലും അത് കിട്ടിയ കാര്യങ്ങൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഒരാഴ്ച അത് അവർക്ക് ചാകരപോലെ അവർ കൊണ്ടാടും അതുകഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാവില്ല അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെയല്ല ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു മാധ്യമങ്ങക്ക് വരെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലെ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട് സത്യസന്ധമായി ന്യൂസുകൾ അവതരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ സമൂഹം നന്നാവും നല്ല മാറ്റം വരാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല ജനുവിനിറ്റി ഒന്നുമില്ലായെന്ന് എനിക്ക് തോന്നാറുണ്ട് അവർക്ക് അവരുടേതായ കച്ചവടം അതാണ് കച്ചവടം ഇപ്പോൾ എല്ലാത്തിലും വരുന്നത് കച്ചവടമാണ് ആ അപ്പം അത് ഒരുപാട് എനിക്ക് തോന്നാറുണ്ട് മിസ്യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാറുണ്ട് പല ചാനൽസിലും പോയി അവർ വിലയ്ക്ക് വാങ്ങിയിട്ട് അവർ ഫണ്ട് ഫണ്ടർ ആവുന്നതുകൊണ്ട് തന്നെ അവർ പല ചാനൽസും പത്രക്കാരും അവരുടേതായ കാര്യങ്ങൾ ഒളിച്ചു വച്ച് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് സമൂഹത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശരിക്കും തെറ്റായ ഒരു വാർത്തയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടുത്തന്നെ മനുഷ്യന്മാർക്ക് ഇതിലൊന്നും വിലയില്ലാണ്ടായിത്തുടങ്ങി അതായത് വാർത്തകൾ ഒന്നും വിശ്വസിക്കാതെ ഏതു വാർത്തയാണ് വിശ്വസിക്കേണ്ടേ ഏതു വാർത്തയാണ് വിശ്വസിക്കാൻ പറ്റാത്തത് അറിയാത്തൊരവസ്ഥയായി